ഞങ്ങളുടെ ജീവിത ടെ ജീവിതത്തിലെ നല്ലൊരു മംഗളകരമായ സംഭവമെന്നു പറയുമ്പോൾ സംഭവമെന്നു പറയുമ്പോൾ ഒരു കല്യാണം ഒരു മേരേജ് ഫങ്ക്ഷൻ അതാണ് കൂടുതലും നമുക്കൊരു കല്യാണമെന്നൊക്കെ ആ കല്യാണത്തിൻ്റെയൊക്കെ അന്ന് രാവിലെ എന്നൊച്ച ആരാണോ കല്യാണത്തിനൊരുങ്ങുന്ന വ്യക്തി ആണോ പെണ്ണോ അത് പുള്ളിക്കാർ ഒരുങ്ങി വന്ന് ഒരുങ്ങി വന്ന് നമ്മുടെ പ്രാർത്ഥന ആദ്യമേ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വീടുകളിൽ നിന്നിറങ്ങുന്നത് അത് ബന്ധുജനങ്ങൾ എല്ലാവരും കൂടി നിന്ന് പുള്ളി പുള്ളിക്കാരി ആണെങ്കിൽ പുള്ളിക്കാരിയെ ഓർത്തു സമർപ്പിച്ചു പുതിയൊരു ജീവിതത്തിലേക്കു കടക്കുമ്പോൾ അതു നമ്മളെപ്പോഴും നന്നായിട്ടു പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചിട്ടു വേണം ഒരു ജീവിതം തുടങ്ങുന്നതല്ലെ അപ്പം പിന്നെ അങ്ങനെ ഒരു ജീവിതം തുടങ്ങുമ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പിന്നെ പ്രാർത്ഥിച്ചു വീട്ടിൽ എല്ലാവർക്കും സ്തുതികളൊക്കെ കൊടുത്ത് ആദ്യ അച്ഛനും അമ്മയ്ക്കും സ്തുതി കൊടുത്തു പിന്നെ സഹോദരങ്ങൾക്ക് സ്തുതി കൊടുത്ത് ബന്ധു ജനങ്ങൾക്കെല്ലാം സ്തുതിയൊക്കെ കൊടുത്താണ് വീടുകളിൽ നിന്നെയിറങ്ങുന്നത് അതു പോലെ ഇവിടെ ഹിന്ദുക്കളും അതുപോലെതന്നെയാണ് അവർ ഒരുങ്ങി ഒരുങ്ങി വന്നു പ്രാർത്ഥിച്ചിട്ടൊക്കെ അവർ വെറ്റിലയും പാക്കും ഒക്കെ കൊടുത്ത് ദക്ഷിണ കൊടുത്തിട്ടാണ് ഹിന്ദുക്കളും അതുപോലെ ചെയ്തിട്ടാണ് അവരും മണ്ഡപത്തിലേക്കു പോകുന്നത് അതുപോലെ നമ്മളും പള്ളിയിൽ ഇതുപോലെ പ്രാർത്ഥിച്ച് വെളുക്കെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങും ഇറങ്ങി പള്ളിയിൽ ചെന്ന് അവിടുത്തെ അവിടുത്തെ കുർബ്ബാനയും കാര്യങ്ങളും എല്ലാം ക്ക് കുർബ്ബാനയുടെ ഇടക്ക് അവരുടെ താലി കുർബ്ബാ കുർബ്ബാനക്കിടക്ക് രണ്ടു പേരും പള്ളിയിൽ ആ രണ്ടുപേരും പള്ളിയിൽ വരുന്ന ആണും പെണ്ണും പള്ളിയിലേക്കു വരുന്നു അവിടെ നിന്ന് പള്ളിയിലോട്ടു കയറി കുർബ്ബാ ആദ്യത്തെ ആദ്യം അവർ വന്നു നിൽക്കുന്നു അതു പള്ളിയുടെ അടുത്തു വന്നെനിക്ക് അതിൻ്റെ വന്നു നിന്നിട്ട് അവർക്ക് വേണ്ടിയുള്ള കുർബ്ബാന അർപ്പിക്കുന്നു എല്ലാവരും കുർബ്ബാനയിൽ പങ്കെടുത്ത്

ഉള്ള അവരെ പറഞ്ഞു മനസ്സിലാക്കി പിന്നെ താലിയൊക്കെ കെട്ടി ക താലി കെട്ടി അതു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു പിന്നെയാണ് കല്യാ കല്യാണ മണ്ഡപത്തിലേക്കു വരുന്നത് അവിടെ വന്നു ഫങ്ഷനും ഫുഡ്ഡുമൊക്കെ കഴിച്ച് അതൊക്കെ നല്ലൊരു അനുഭവമാണ് ക കാണാനും അത് ഒരു നല്ലൊരു എൻജോയ്മെൻറ്റ് എല്ലാവരും ആയിട്ട് സംഭവങ്ങളൊക്കെ കാണാനൊക്കെ അവരുടെ അവരെയും നമ്മൾ പ്രത്യേക പ്രാർത്ഥനയിൽ നമ്മളോർക്കയും പ്രാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കയൊക്കെ ചെയ്യുന്ന ഇത് പിന്നെ അവിടന്ന് ആ ഫുഡ് മണ്ഡപത്തില് വന്നിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് അതുപോലെതന്നെയാണ് ഹിന്ദുക്കളും അവരും ഹിന്ദുക്കളും അതുപോലെതന്നെയാണ് അവരും വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി പ്രാർത്ഥനയോടൊക്കെ വീടുകളിൽ നിന്നിറങ്ങി വീടുകളിൽ നിന്നിറങ്ങി കല്യാണ മണ്ഡപത്തിൽ വന്ന് അവർ അവരുടെ അതു ഹിന്ദുക്ക ഹിന്ദുക്കളുടെ രീതിയിൽ കാണുമ്പം പ്രത്യേക ഒരു ഇത് നല്ല ഒരനുഭവമാണ് അത് അവരുടെ അവരുടെ ഇപ്പോൾ ഒരു പെൺ ഒരു പെൺകുട്ടി ആണെങ്കിൽ അച്ഛൻ കയ്യിൽ നടന്നു പിടിച്ചു കൊണ്ട് ചുറ്റി മണ്ഡപത്തിലോട്ടു കയറ്റുന്നതും അതായത് അവർ മണ്ഡപത്തിൽ നാല് ദിവസം നാലു വട്ടം എന്തോ ചു മൂന്നു വട്ടം ചുറ്റി കയറി മണ്ഡപത്തിലിരിക്കുന്നത് ഒക്കെ നല്ല ഒരു അനുഭവമാണ് നമുക്കത് നോക്കി നിൽക്കുന്നതൊരിതു തന്നെയാണ് അതൊക്കെ അവരുടെ ചടങ്ങുകൾ കാണുന്നത് നല്ലൊരു അനുഭവമാണ് അതുപോലെ നമ്മുടെ ക്രിസ്ത്യൻസിലാണെങ്കിലും മണ്ഡപത്തിൽ നമ്മുടെ ഫുഡ്ഡൊക്കെ കഴിച്ചു പെറുക്കി പിന്നെ വീടുക വീട്ടിലോട്ടാണ് ആണ് രണ്ടു പേരും കൂടി പോകുന്നതു വീടുകളിൽ പോകുമ്പോൾ അവിടെ നിന്നു വെളിയിൽ നിന്ന് അമ്മമാർ നിലവിളക്കും കൊണ്റ്റു വന്ന് കുരിശ് കൊന്ത എടുത്ത് കുരിശ് വരച്ച് ആണ് പെൺകുട്ടിയെ അകത്തേക്ക് വലതുകാൽ വെച്ച് അകത്തേക്കു കയറ്റുന്നതും അവിടെ കൊ കൊണ്ടു വന്ന് പിന്നെ അവർക്കു പ പാല് കൊടുക്കുന്നതു ഒക്കെ കുടിക്കാൻ പാല് കൊടുക്കുന്നതും പിന്നെ കച്ച മാറുന്നതും ഒക്കെ അങ്ങനെയൊക്കെ ഒരു നല്ല രസകരമായ അനുഭവമാണ് കല്യാണമെന്നു പറയുന്നത് അത് അങ്ങനെ തുടങ്ങി അങ്ങനെയൊരു കല്യാണം എല്ലാവരും രണ്ടു ഹിന്ദുക്കളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞു വീടുകളിൽ വന്ന് അവരുടെ വീടുകളിൽ കയറ്റി വലതു കാലും വെച്ചും നിലവിളക്കും കൊണ്ടു കയറ്റി കയറി അവർക്കുള്ള പാല് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാല് കുടിച്ച് പഴമൊക്കെ തിന്നൊക്കെയാണ് ആ ഒരു കല്യാണം അവരുടെ മംഗളമായിട്ടു കഴിയുന്നത് അതു കാണാൻ ഒരനുഭവമാണ് നല്ല പിന്നെ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതും നല്ല നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്